നമ്മളെ ഇവിടെ കേരളത്തിന് പുറത്ത് തമിഴ് നാടൊക്കെ പോയിട്ടുണ്ട് പിന്നെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചു കൊണ്ടിരുന്നപ്പം കർണ്ണാടക ട്രിപ്പൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ മിക്കപ്പോഴും പോകുന്നത് തമിഴ്നാടാണ് അമ്പലങ്ങളിലൊക്കെ പളനിയിൽ മധുര മീനാക്ഷി ക്ഷേത്രം പിന്നെ ചുമ്മാ ജസ്റ്റ് കറങ്ങാൻ മുന്തിരി പാടങ്ങളൊക്കെ കാണാൻ അങ്ങനെയൊക്കെ പോകാറുണ്ട് ചുമ്മാ അത് പ്രത്യേകിച്ച് ലക്ഷ്യം അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാര്യം എന്നല്ല നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ യാത്രയൊക്കെ പോകുമല്ലോ ആ ഒരു രീതിക്ക് ജസ്റ്റ് ഫാമിലിയായിട്ട് ഒരു കറങ്ങാനായിട്ട് പോകുന്നതാണ് അങ്ങനെയൊക്കെ മഹാ അവിടെ എന്താ വെള്ളച്ചാട്ടങ്ങളുണ്ട് നല്ല പാടങ്ങൾ മുന്തിരി പാടങ്ങളുണ്ട് നെൽപ്പാടങ്ങളുണ്ട് അതെല്ലാം കാണാനായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇടക്ക് പോകാറുണ്ട് പിന്നെ ഇതേപോലെ ദൂരെ കോയമ്പത്തൂർ അങ്ങനെ തമിഴ്നാടാണ് നമ്മൾ മെയിനായിട്ട് പോകാറുള്ള എന്താണ് നമ്മൾ കേരളം വിട്ടിട്ട് പോയിട്ടുള്ളത് തമിഴ്നാട് തന്നെയാണ് കൂടുതൽ അതിൻ്റെ ലക്ഷ്യമെന്ന് എടുത്തു പറയാനായിട്ട് ഇന്ന കാര്യത്തിനുപ്പോയി എന്ന് പറയാനില്ല നമ്മൾ ഫാമിലിയായിട്ട് ജസ്റ്റൊരു എന്താ ഒരു കറങ്ങുക ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ അതിൽ ഉദ്ദേശമായിട്ട് വരുന്നുള്ളൂ അത് പിന്നീട് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ പിന്നീടൊക്കെ ഇരുന്ന് കാണുമ്പോൾ തന്നെ ആ കഴിഞ്ഞവർഷം ഞങ്ങൾ ഈ സമയത്ത് അവിടെ പോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സന്തോഷം തന്നെ തോന്നും അങ്ങനെ ഞാൻ പോയിട്ട് പുറത്ത് നമ്മുടെ സംസ്ഥാനം വിട്ട് പുറത്ത് പോയിട്ട് കൂടുതലും തമിഴ്നാട് തന്നെയാണ്